എൻ്റെ ഉപജീവന മാർഗ്ഗം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഹസ്ബൻഡ് ഒരു പോലീസ് ഓഫീസറാണ് അതായത് കോൺസ്റ്റബിൾ ആണ് പിന്നെ ഞാനെന്താ ചെയ്യണേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് മക്ക ഞാനിപ്പോളാണ് ജോലിക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് കാരണം മക്കളൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ മൂത്തയാള് പിന്നെ രണ്ടിലും ഇളയാള് എൽകെജിയിലായിട്ടിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം വീട്ടില് വെറുതെ ഇരിക്കണ്ടല്ലോ എന്നൊള്ളൊരു മൈന്റില് ഞാനിപ്പോ ജസ്റ്റൊരു സൂപ്പർ മാർക്കറ്റില് അതായത് ബില്ലിംഗ് സ്റ്റാഫായിട്ട് കയറിയിട്ടുണ്ട് അപ്പം അതാണ് മെയ്നായിട്ട് ചെയ്യുന്ന ജോലി അപ്പം നമക്ക് പത്ത് മണി തൊട്ട് ആറ് മണി വരെയാണ് അപ്പം ആ ഒരു ടൈമിലാണ് ജോലി ടൈമ് പോലത്തെ വീട്ടിലിരുന്ന് ടൈമ് കളയണ്ടല്ലോ പിന്നെ പിഎസ്സികാര്യങ്ങളൊക്കെ നോക്കുന്നൊണ്ട് എന്നാലും വെറുതെ വീട്ടിലിരുന്ന് എല്ലാരും പോയ്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരുന്ന് വെറുതെ ടൈമ് കളയണ്ടല്ലോന്നുള്ളൊരു മൈൻഡില് ജസ്റ്റ് കുറച്ച് പൈസ കിട്ടുവാണങ്കിൽ അത്രയായില്ലേ നമക്കിപ്പം കുട്ടികൾക്ക് ഫീസടക്കാനാണെങ്കിലും ഇപ്പം ഒരാളെ തന്നെ ആശ്രയിക്കണ്ട ആവശ്യയില്ലല്ലോ ഫീസടക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അതായത് അവരെയും കൂടെ സഹായിക്കാൻ പറ്റുവല്ലോ അപ്പം ആ ഒരു മൈൻഡില് പോകാൻ തൊടങ്ങിയതാണ് അപ്പം ഞാന് ആ ഒരു ഒരു ഇതുകൊണ്ടാണ് ഈ ഒരു ജോലി തെരഞ്ഞെടുക്കാൻ കാരണം അല്ലാണ്ട് വേറെ ഒന്നൂല്ല അപ്പം അത്യാവശ്യം നല്ല ജോലി കാര്യങ്ങളൊക്കെ കിട്ടീട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുറച്ചു കൂടുതല് സാലറി കാര്യങ്ങളൊക്കെ കിട്ടീട്ടൊണ്ടെങ്കിൽ വേറെ ജോലിയാണെങ്കിൽ ആ ജോലിക്ക് പോകും